ചേച്ചി നല്ല മീനെന്നാ ഉള്ളത് ഇപ്പോൾ എനിക്ക് അയലയാണ് വേണ്ടത് അയല മീൻ ഇത് ചീഞ്ഞ അയല അല്ലേ ഈ അയല എനിക്ക് വേണ്ട നല്ലതൊന്നും ഇല്ലേ പച്ച മീൻ വല്ലതും താ

ചേച്ചി ഇതേ ഇതിൻ്റെ ഇതൊന്ന് പൊളിച്ച് നോക്കിക്കേ ഇത് കണ്ടോ ഇവിടെ ചീഞ്ഞിരിക്കുന്നത് ചീഞ്ഞ മണം ഉണ്ട് ഇത് നല്ല മീനല്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെനിന്ന് വാങ്ങിച്ചതുകൊണ്ട് പോയ മീൻ കഴിച്ചിട്ട് ഹോസ്റ്റലിൽ പിള്ളേർക്ക് വയ്യായിരുന്നു വയറു വേദനയായിരുന്നു ആ അത്ര പച്ചയൊന്നും അല്ല എന്താ വില എന്നാ അമ്പത് രൂപയോ ചേച്ചി ഒരു മീൻ ഒരു കിലോ മീനിന് ഒരു അര കിലോയ്ക്ക് തന്നെ ഇപ്പം നൂറ്റമ്പത് കൊടുക്കണം അപ്പോൾ അമ്പത് രൂപയ്ക്ക് തരണമെങ്കിൽ ഇത് ചീഞ്ഞ മീൻ തന്നെ ഉറപ്പാണ് ചേച്ചി എന്നാ ഒന്നും മിണ്ടാത്തത് ചേച്ചി തന്നെ ഈ ഈ ചേച്ചി തന്നെ ഈ മീനിലോട്ട് നോക്കിക്കേ ഈ ചൂര കണ്ടോ ഇതെന്തുവാണ് ഇത് ഇങ്ങനെയാണോ മീനിരിക്കുന്നത് ഇതെത്ര ദിവസം പഴക്കം ഉള്ളതാണ് ചേച്ചി അത് അതെന്നാ വർത്തമാനമാണ് ചേച്ചി പറഞ്ഞത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്ന് വാങ്ങിക്കുന്നതാണ് പക്ഷേ ഇന്നലത്തെ ആ മീൻ കൊള്ളത്തില്ലായിരുന്നു ഇന്നലെ ഇരിക്കുന്ന ആ മീൻ തന്നെയാണെല്ലോ ഇന്നും ഇരിക്കുന്നത് ചേച്ചി ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ടൊന്ന് വാ അവിടെ ആ പിള്ളേർ വയറുവേദന എടുത്ത് രണ്ട് മൂന്ന് പേര് പോയില്ല ഇന്നലെ ഹോസ്റ്റലിലെ ഫുഡല്ല ഇന്നലെ മീനായിരുന്നു പിള്ളേർക്ക് ചേച്ചി നല്ല മീനെടുത്താദ്യം മാറ്റി വച്ചു കാണും ചേച്ചി എങ്കിൽ ഈ അമ്പത് രൂപയ്ക്കൊക്കെ മീൻ വിൽക്കുന്നു എന്നു പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി ഏച്ചി ഇങ്ങനെ എന്നോട് പറഞ്ഞില്ലേ വേറെ കടയിൽ പോയി വാങ്ങിക്കാൻ ഇനി ചേച്ചി ആ എന്നാൽ ഒരമ്പത് അമ്പത് രൂപയ്ക്ക് ഇതൊന്ന് ഈ ചീഞ്ഞ മീനൊക്കെ അമ്പത് രൂപയ്ക്ക് ആര് വാങ്ങിക്കാൻ എങ്കിലും എടുത്തേക്ക് ആ ആ ചൂരയും കൂടി കുറച്ചിട്ടേക്ക് കേട്ടോ